ഹലോ ഗുഡ് മോർണിംഗ് എടാ രാഗേഷാണ് സംസാരിക്കുന്നത് പിന്നേ നീ ഇപ്പോഴും നമ്മളെ പാസ്പോർട്ട് ഓഫീസില്ത്തന്നെയല്ലേ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് വർക്കൊക്കെ എങ്ങനെ പോകുന്നു എന്താ പിന്നല്ലേ ഞാന് കുറേ ആയി മകന് വിളിക്കുന്നുണ്ട് അമേരിക്കയിലേക്കു പോവാന് കുറേയായിട്ട് പോകണം പോകണമെന്നു വിചാരിക്കലുണ്ട് പക്ഷേ ലീവൊക്കെ എടുക്കുന്നത് ആലോചിച്ചിട്ട് ഇതുവരെ അതിനു തിരിഞ്ഞിട്ടില്ല അപ്പോഴിപ്പോള് ഏതായാലും കോളേജൊക്കെ അടച്ചതല്ലേ പിന്നെ വെക്കേഷനില് പോകാമെന്നു വിചാരിച്ചിട്ടായിരുന്നു അപ്പോള് നോക്കുമ്പോള് എൻ്റെ പാസ്പോർട്ട് പുതുക്കാനായിട്ടുണ്ട് ഇതുവരെ അത് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു അപ്പോള് അവനെന്തായാലും വെക്കേഷനില്ത്തന്നെ വരുമിപ്പോള് അവന് കുറച്ച് വർക്കൊക്കെ ഒഴിഞ്ഞ സമയമാണ് അപ്പോഴിപ്പോള് പോയാല് നല്ലവണ്ണം അവിടെ സ്ഥലങ്ങളൊക്കെ കണ്ട് എൻജോയ് ചെയ്യാമെന്നു പറഞ്ഞ് ഇങ്ങനെ ആഗ്രഹിച്ചു നില്ക്കുകയായിരുന്നു അപ്പോള് അതിൻ്റെ ഇടയ്ക്കാണ് ഇതു കണ്ടത് ഇനി ഇപ്പോഴീതു പുതുക്കിയിട്ടു കിട്ടാന് ടൈമെടുക്കുമോ നീ അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് ഷെയര് ചെയ്യണം കെട്ടോ അതേപോലെ എത്ര പേപ്പേഴ്സ് അതിന് എന്തൊക്കെ പേപ്പേഴ്സാണു വേണ്ടതെന്നാവു അല്ലേ എന്താണ് ആ രേഖകളൊക്കെ ഏതൊക്കെയാണെന്നുള്ളതേ അതൊക്കെയൊന്നു പറഞ്ഞുതരണം അന്നെടുത്തതല്ലേ കുറേയായിട്ട് പുതുക്കേണ്ട അതിൻ്റെ പ്രൊസീജിയറൊന്നും അറിയില്ല ഏതായാലും അതൊന്നു പറഞ്ഞ തരണം ഒന്ന് പോവാനായിരുന്നു കെട്ടോ ആ ആ ആ ഓക്കെ താങ്ക്യൂ